പെട്രോളിൻ്റെ വിലവർധന ബൈക്കിൻ്റെ യാത്രക്ക് വളരെയധികം നമ്മളെ ബാധിച്ചിട്ടുണ്ട് ദിനംപ്രതി പെട്രോളിൻ്റെ വില വർധിച്ച് വർധിച്ച് നമ്മൾ സാധാരണക്കാരാണ് നമ്മള് യാത്ര പോവാൻ ഇഷ്ടപെടുന്ന ആൾക്കാരുമാണ് ഇങ്ങനെയുള്ള പെട്രോളിൻ്റെ വിലവർധന നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് പെട്രോളിൻ്റെ വിലവർധന ഇങ്ങനെ ദിനംപ്രതി കൂടുന്നത് കൊണ്ടുതന്നെ നമക്ക് പെട്രോൾ പമ്പിൽ പോകുവാനും പെട്രോൾ അടിക്കാനും നമ്മള് സാമ്പത്തികസ്ഥിതി വളരെ മോശമായതിനാൽ ദൂരെ യാത്രകൾ ചെയ്യാൻ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് ദൂരയാത്രകൾഎനിക്ക് വളരെ ഇഷ്ടമായതിനാൽത്തന്നെ എനിക്ക് പെട്രോളിൻ്റെ വിലവർധന വളരെയധികം പ്രശ്നം തന്നെയാണ് പെട്രോളിൻ്റെ വില ഉപയോഗം പരിസ്ഥിതി ഹാനീകരമാണന്താ ഹാനീകരം തന്നെയാണ് അയിനായി പുതിയ കണ്ടുപിടിത്തങ്ങൾ വന്നിട്ടുണ്ട് ഇലട്രിക് വാഹനങ്ങൾ ഇലട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൂരെ യാത്രകൾ നടത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അയിനുള്ള പുതിയ നൂതനമായ സാങ്കേന്തിക വിദ്യകളും പുതിയ ചാർജിങ്ങ് സ്പോട്ടുകളും ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പുതിയ യാത്രയിലേക്ക് പോകാൻവേണ്ടി പുതിയ ഇലട്രിക് വാഹനങ്ങൾ പർച്ചേയ്സ് ചെയ്യാൻ എനിക്ക് കഴിയും